ഹലോ എനിക്കൊരു ഇരുനൂറ് കോഴിയുണ്ട് അത് വിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കയാണ് അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ അതേ ഇവിടെ വന്നാൽ കൊണ്ടുപോവാൻ പറ്റുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ വളർത്തുന്ന കോഴി ഞാനത് പോലെ നല്ല രീതിക്കാണ് വളർത്തി കൊണ്ടിരുന്നത് അതിന് തീറ്റെം ഭക്ഷണോം വെള്ളോം അതിൻ്റെ വാസസ്ഥലോം വാസയോഗ്യമായ സ്ഥലങ്ങളും എല്ലാം നല്ല നീറ്റായിട്ടും വെടിപ്പായിട്ടും തന്നെയാണ് നോക്കി കൊണ്ടിരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് കൊണ്ടു പോകുന്നത് വണ്ടി വണ്ടിയേൽ അല്ലേ കൊണ്ടു പോവുന്നത് അപ്പം ഇച്ചിരേ നല്ല രീതിയിലുള്ള ഇച്ചിരെ സ്പെയ്സുള്ള ഒരു വണ്ടി കൊണ്ടു വന്നാൽ കൊണ്ടു പോവാൻ പറ്റും ആയിരിക്കും എന്നാന്ന് പറഞ്ഞാൽ അതിനെ അതിന് നല്ല വായു സഞ്ചാരോം അതിന് മതിയായ സ്ഥലവും ഒക്കെ നൽകുണ്ണ രീതി വേണം അതിനെ കൊണ്ടുപോവാനായിട്ട് അതെന്നാന്ന് വെച്ചാൽ ഞാൻ അതുപോലെയാണ് അതിനെ നോക്കിയിട്ടുള്ളത് പിന്നെ അതിനൊട്ടും സമ്മർദ്ധം ഉണ്ടാകാത്തക്ക രീതിയിൽ നിങ്ങളതിനെ കൊണ്ടു പോയാൽ കൊള്ളാമായിരുന്നു പിന്നെ എനിക്ക് പിന്നെ ഞാൻ ഇത്രയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ നോക്കിയ കോഴികളാണ് ശരിയായിരിക്കാം നിങ്ങളതിനെ കശാപ്പ് ചെയ്യാനോ അങ്ങനെ അല്ലെങ്കിൽ വളർത്താനോ ഒക്കെയായിരിക്കും കൊണ്ടു പോവുന്നത് അല്ലെങ്കിലും വളർത്തുക എന്നുള്ള ഉദ്ദേശം അത് തന്നെയല്ലേ അന്നേരം നിങ്ങൾ അതിനെ ഇവിടെന്ന് കൊണ്ടു പോകുമ്പം നല്ല രീതി തന്നെ കൊണ്ടു പോകുന്നു എനിക്ക് ഉറപ്പുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ അതിനെ ഏത് രീതിയിലാണ് അതിനൊട്ടും തിക്കി തിരക്കിയൊന്നും കൊണ്ടുപോകാതെ അതിന് ഒട്ടും സമ്മർദ്ദം ഉണ്ടാക്കാത്ത രീതിയിൽ കൊണ്ടുപോയാൽ കൊള്ളാം എന്ന് എനിക്കൊരു കാര്യം ഇത് പറയാനുണ്ട് അത് എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടു പോവുന്നുള്ളത് ഞാനത് ശ്രദ്ധിക്കും അല്ലേ നിങ്ങളുടെ പുറകെ തന്നെ ഞാൻ വന്ന് അതെങ്ങനെയാണ് ഏത് രീതിയിലാണ് നിങ്ങളയിനെ ഏത് സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നേന്നൊക്കെ എനിക്ക് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ട് എനിക്കത് നോക്കിയേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിത്രേം അത് ഡീറ്റെയിലയിട്ട് പറയുന്നത് നമ്മൾ നമ്മുടെ നല്ല രീതിക്ക് അതിനെ വളർത്തി പരിപാലിച്ച് കൊണ്ടു പോകുന്നതല്ലേ അതുകൊണ്ട് ആ ആ രീതിയിൽ തന്നെ നിങ്ങളും കൊണ്ടുപോയാൽ കൊള്ളാം എന്നുള്ള ഒരു കാര്യം ഉണ്ട് ആ അതുകൊണ്ട് കൊണ്ടു പോവുന്ന അതിന് അതിന് നല്ല വായുസഞ്ചാരം ഉണ്ടെന്നും മതിയായ സ്ഥലത്ത് അതിനെ ഇടുങ്ങി തിങ്ങി നിൽക്കാതെ നല്ല രീതിയിലാ അല്ലേ കൊണ്ടു പോകാനായിട്ട് ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരം ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ വരുക ആണെന്നുണ്ടെങ്കിൽ എപ്പം വരുമായിരിക്കും വരുവാണെന്നുണ്ടെങ്കിൽ ആ അതിനെ കൊണ്ടുപോകാൻ പറ്റുന്നതായിരുന്നു പിന്നെ ഞാനീ പറഞ്ഞ കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമുക്കും ഒരു പരിഗണന കൊടുക്കണ്ടേ മൃഗങ്ങളാണേലും മനുഷ്യരാണേലും മനുഷ്യർക്ക് കിട്ടുന്ന പരിഗണന തന്നെ അതിങ്ങ് അവർക്കും കൊടുക്കണമല്ലോ ആ ഒരു മാനുഷിക പരിഗണന എന്നൊന്നുണ്ടല്ലോ എല്ലാ മനുഷ്യർക്കും ആ ഒരു അതുകൊണ്ടാണ് ഞാനിത്രയൊക്കെ പറയുന്നത് അതുകൊണ്ട് ആ രീതിയിൽ അതിനെ കൊണ്ടുപോവാൻ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എല്ലാവർക്കും അവനോൻ്റെ ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അത് ആ രീതിയിൽ നിങ്ങളൊന്ന് കൊണ്ട്പോയാൽ ശ്രദ്ധിക്കണം അത് പറ്റിയ രീതിയിലുള്ള വാഹനവുമായിട്ട് വന്നാൽ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആ ശരിയെന്നാൽ ഓക്കേ